ഹലോ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫീസല്ലേ സർ എൻ്റെ പേര് അമൃത എന്നാണ് ഞാനൊരു ഗെയിമിംഗ് കൺസോള് വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അബദ്ധത്തിൽ പറ്റിയൊരു ഇതാണ് എനിക്ക് ആ വേണ്ടത് ആ ഒരു സാധനമല്ല പക്ഷേ മാറിയിട്ട് എന്തു ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് സർ ആ സാധനമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് പക്ഷെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് അതല്ല റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് അതല്ലയെന്ന് മനസ്സിലാവുകയും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എനിക്കത് ക്യാൻസൽ ചെയ്യണം എനിക്കിവിടെ ആ ഒരു ഓപ്ഷൻ കാണുന്നില്ല അതുപോലെത്തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനായിട്ടുള്ള പേയ്മെൻ്റ് പോയിട്ടുണ്ട് എൻ്റെ ഓൾഡർ ഐ ഡിയെന്നു പറയുന്നത് എട്ട് അഞ്ച് മൂന്ന് രണ്ട് ആറ് നാല് പൂജ്യമാണ് അഡ്രസ്സ് വന്നിട്ട് കോങ്ങാടാണ് കൊടുത്തിരിക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് വരുന്നത് അതെ സാർ എനിക്കത് ക്യാൻസൽ ചെയ്യുന്നതിനുവേണ്ടിയിട്ട് ഞാനെന്താണ് സാർ ചെയ്യേണ്ടത് ഓക്കെ സർ ഒ ടി പി വരും ഓക്കെ ആ ഒ ടി പി പറഞ്ഞു തന്നാൽ മതിയല്ലേ സാർ സാർ അത് ക്യാൻസൽ ആവുകയും വേണം അതോടൊപ്പം തന്നെ ഞാൻ അടച്ചിട്ടുള്ള ആ പേയ്മെൻ്റ് എനിക്ക് റിട്ടേൺ കിട്ടുകയും വേണം തിരിച്ച് സർ എനിക്ക് എസ് ബി ഐയുടെ അക്കൗണ്ടാണ് ഉള്ളത് അതെ സർ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയല്ലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയല്ലേ സർ ഓക്കെ സർ താങ്ക് യു